നാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന്